ആ ഇല്ല ടീച്ചറെ പറഞ്ഞോളൂ

എൻ്റെ ആ ഓക്കെ

ആ ഓക്കെ ഓക്കെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ ആ ഉണ്ടാവും ഉണ്ടാവും എന്തായിരുന്നു ടീച്ചറെ ആ പ്രോജക്റ്റിൻ്റെ പരിപാടി എന്തായിരുന്നു ആ ഓക്കെ എൻ്റെ ക്ലാസിൽ മൊത്തം മൊത്തം മൊത്തം ഒരൂ അറുപത് പിള്ളേരുണ്ട് നമുക്ക് അവരെ ഒരു അഞ്ച് ഗ്രൂപ്പാക്കി തിരിക്കാം അ അഞ്ച് മതിയോ ടീച്ചറിന് അഞ്ച് മതിയോ ടീച്ചറിന് അഞ്ച് ഗ്രൂപ്പ് മതിയോ ആ ഓക്കെ ആ ആ ടീച്ചറെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നാൽപത്താറ് ക്ലാസ്സ് നമ്മൾ എത്ര ദിവസമാണ് ടീച്ചറെ അവർക്ക് അലോക്കെറ്റ് ചെയ്ത് കൊടുക്കണത് നാല് ദിവസം കൊണ്ട് തീർക്കോ അവർ ആ ഓക്കെ ഓക്കെ ഓക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എത്രപേരുണ്ട് ആ നാൽപ്പത്തേഴ് പേരാ അല്ലേ ഉള്ളത് ഓക്കെ ഓക്കെ ആ ഓക്കെ ഏതൊക്കെ ജില്ലയിലാണ് വിടുന്നത് നമ്മൾ ഏതൊക്കെ ജില്ലയിലാനു വിടുന്നത് നമ്മൾ ആ ഓക്കെ ഓക്കെ പത്തനംതിട്ട ജില്ല അല്ലേ ആ ഓക്കെ ഒരാൾക്ക് എത്ര ടാർഗെറ്റ് വരുവായിരിക്കും ഒരാൾക്ക് എത്ര പേരെ ചെയ്യണമായിരിക്കും മൂന്ന് പേര് ആ ഹാ നമുക്ക് എന്തേലും സഹായം ചെയ്ത് കൊടുക്കണോ പിള്ളേർക്ക് ആ ഓക്കെ ഓക്കെ വന്ന് കയറിയല്ലേ ഉള്ളൂ പിള്ളേർ ആ നമുക്ക് നോക്കാം ശരിയാക്കാം ആ ഓക്കെ ടീച്ചറെ ആയിക്കോട്ടെ

ആ ഓക്കെ ആയിക്കോട്ടെ ടീച്ചറെ ആയിക്കോട്ടെ

ആ ആ ആവട്ടെ ടീച്ചറെ ആയിക്കോട്ടെ ശരി ഒ ഒ ഓക്കെ ടീച്ചറെ